ഇത് ഹോണ്ടയിൻ്റെ കമ്പനിയല്ലേ ആ അവിടുത്ത നമുക്ക് ഹോണ്ടയിൻ്റ ഒരു കാർ വേണമായിരുന്നു

ആ ആ അതൊന്ന് ഫാമിലിയായിട്ട് പോകാനുള്ള വണ്ടിയാണ്

ഐ ട്വൻ്റി ഏതാണ് ഏതാണ് മോഡലേതാണ് പവർ വിൻഡോ ഉള്ളത് അതിനൊക്കെ റേറ്റ് ഒക്കെ എത്രയാണ് വരിക

ഞാൻ എടുക്കാനാണ് ആ ഇ എം ഐ ആയിട്ടെടുക്കാൻ നമ്മൾ ആദ്യമൊരു മുപ്പത് മുപ്പത്തഞ്ച് തരാനാണ് ആലോചിക്കുന്നത്

ആ ആ ഓ ചിലത് ഓഫ് റോഡൊക്കെ പോകുകയില്ലേ ആ നമ്മുടെ വീടിൻ്റ അടുക്കൽ എന്ന് പറഞ്ഞാൽ ഇത്തിരി ഓഫ് റോഡ് ഉള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് ചോദിച്ചത് അല്ലല്ല ഇത് ചെറിയൊരു പൊളിഞ്ഞ് കിടക്കുന്ന റോഡാണ് അതുകൊണ്ടാണ് പറഞ്ഞത്

പെട്രോള് വേണ്ട പെട്രോള് ആകില്ല ഡീസലിൻ്റെ ആണ് നോക്കുന്നത് ഇരുപത്തഞ്ച് ആ ഫുൾ ഓപ്ഷൻ ഇരുപത്തെട്ട് അല്ലെ ഇരുപത്തെട്ട് മുപ്പത്തി രണ്ട് ഇപ്പം ഇത് ഇനി ഇതുണ്ടാവില്ലെ ഇ എം ഐ ഒക്കെ ഉണ്ടാവില്ലേ ആണോ ഇ എം ഐ അതൊക്കെ എങ്ങനെയാണ് ചെയ്യുക നൽപ്പതാണോ ആ അപ്പം അത് കുറച്ച് കുറയ്ക്ക് ഉണ്ടാകില്ല അല്ലെ വേറെ വണ്ടിക്ക് കുഴപ്പം ഒന്നും ഇല്ലല്ലോ നല്ല കണ്ടീഷൻ വണ്ടിയല്ലേ നാളെ വന്നാൽ കാണാൻ പറ്റുവോ ആ വൈറ്റ് വേണ്ട ബ്ലാക്ക് ആ ബ്ലാക്ക് നോക്കാം ആ നമുക്ക് അതേ രീതിയിൽ ഉള്ളതാണ് വേണ്ടത്

ഇല്ല ഇതൊക്കെ ഷോ ഷോറുമിൽ നിന്ന് ചെയ്ത് തരുമോ ആ ഇതിൻ്റെ പേയ്മെൻ്റ് ഫുള്ളും കൂടെ ചെയ്യാൻ എത്ര പേയ്മെൻ്റ് വരും ആ ആ ആ വണ്ടി നിങ്ങൾ ഇപ്പം പറഞ്ഞത് ഫുള്ളും ചെയ്യാം

ഇരുപത്തഞ്ച് രൂപ ആ ആയിക്കോട്ടെ അപ്പം അറുപത്തഞ്ച് എൻ്റെ പേര് അനന്തു എന്നാൽ ഞാൻ ഷോ റൂമിലേക്ക് വരുന്നുണ്ട് അത് സാധനമുണ്ടോന്ന് നോക്കാൻ വേണ്ടി വിളിച്ച് നോക്കിയതാണ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ അവിടുത്തെ നോക്കിക്കോ ആ എന്നാൽ ഞാൻ നാളെ വന്നിട്ട് നോക്കാം എന്നിട്ട് നിങ്ങൾ അതിനെ ബുക്ക് ചെയ്താൽ മതി ഞാൻ തിരുനെല്ലി ആ ആയിക്കോട്ടേ ഞാൻ പറയാം ആ ഓക്കേ